നമ്മളേ നാമാക്കിയ ഭാഷ മലയാളവാണ് അമ്മമ അറിവിൻ്റെ ആദ്യാക്ഷരാണ് ആണ് മലയാളം ഇന്ന് മലയാളികളൊര്പാട് മാറി കുട്ടികൾ നന്നായി ഇംഗ്ലീഷ് പറയാൻ വേണ്ടി എന്ത് സാഹചെ എന്ത് ത്യാഗവും സഹിക്കാനവര് തയ്യാറാണ് ഇപ്പോൾ നമ്മള് നമ്മളേ മക്കളേത്തന്നെ നമ്മൾ മലയാള മലയാളം മെഡ് വിടാതെ ഇംഗ്ലീഷ് മീഡിയത്തിലാണെല്ലാരും വിടുന്നത് കുറച്ച് പൊങ്ങച്ചത്തിനും ആഡമ്പരത്തിനും വേണ്ടിയാണ് ഇംഗ്ലീഷ് മക്കളെ പഠിപ്പിക്കുന്നത് പക്ഷേ അതില് മലയാള ഭാഷയില് മറക്കുന്നത് തന്നെ പറയാം ഇപ്പം എല്ലാ കുട്ടികളേയും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചേർക്കുന്നത് ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ ഏതെങ്കിലും ഒരുവാ ഒരു വിഷയം മാത്രം മലയാളം ഉണ്ടാകും അതും അത് എല്ലാകൂട്ട് അതുകൊണ്ട് ഈ ഒരു ഭാഷ ഒരു വിഷയം മാത്രം മലയാളവുണ്ടായതുകൊണ്ട് എല്ലാകുട്ടികളും അത്ര ഒരു കാര്യായിട്ടെടുക്കുന്നില്ല ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അതുപോലെ സ്കൂളുകളിലും അങ്ങനെയാണ് ഈ ഓഫീസുകളിലെല്ലാം ഇംഗ്ലീഷ് ഇംഗ്ലിഷിനാണിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ഓഫീസിലേ ഓഫീസിലിപ്പോൾ മല മലയാളത്തിലല്ല എല്ലാം എല്ലാം ഇംഗ്ലീഷിലാണ് കം ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ട്റ് കമ്പ്യൂട്ടറിലാണ് ചെയ്യ്ന്നത് അതെല്ലാം ഇംഗ്ലീഷിലാണ് ചെയ്യുന്നതെല്ലാം അതുകൊണ്ട് ഇപ്പോളത്തെ ഓഫീ മലയാള മലയാള ഭാഷ പഠിക്കുന്നത് കൊണ്ടുതന്നെ പഠിക്കുന്നത് കൊണ്ട് തന്നെ മറുനാട്ടിൽ പോയാലൊന്നും നമുക്ക് അവരുമായി കോണ്ടാക്റ്റ് നമുക്കവരുമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല ഭാഷ മനസിലാവുന്നില്ല ഇപ്പം ഇംഗ്ലീഷ് ഭാഷ മലയാളം മാത്രറിയുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നതിപ്പോൾ ഒന്നും അവർക്ക് അങ്ങനെ ഇപ്പം ഇപ്പഴേ പഴയ കാല പഴയ ആൾക്കാർക്കൊന്നുവങ്ങനെ ഇംഗ്ലീഷ് അറിയില്ല അവരെല്ലാം ഇപ്പം ഇങ്ങനെ വേറൊരു നാട്ടിൽപ്പോയാല് അവിടെ എല്ലാം ഇപ്പം ഈ അധികവും ഇംഗ്ലീഷും എന്താർന്നേലു ഇംഗ്ലീഷ് അറിയുന്നവരാണിപ്പം കൂട്തലുള്ളത് പുതിയ പുതിയ ജനറേഷനില് ഉള്ളത് മലയാളം അവിടെപ്പോയാലും എല്ലാം എന്ത് ഓഫീസിൽ പോയാലും അവിടെ എല്ലാം ഇംഗ്ലീഷ് ആണ് ഉള്ളത് അപ്പോൾ ഈ പൈ ഈ പഴയ കാലം പഴയ കാലവിള്ളവർക്കെല്ലാം അങ്ങനെ ഇങ്ക്ളീഷറിയാമ്പറ്റില്ല അപ്പം കുറച്ച് നല്ലോണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വേറൊര് നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്നവർക്കും പെട്ടെന്നൊര് സ്ഥാനം ഇത് പ്രമോഷൻ കിട്ടി ഇത് സ്ഥലം മാറ്റം കിട്ടിയാലോ അങ്ങനെന്തെങ്കിലും കിട്ടിയാല് പ്രമോ ഇത് സ്ഥലം മാറ്റം കിട്ടിയാല് അവർക്ക് വേറൊര് നാട്ടിൽ പോയാൽ അവർക്ക് അപ്പം ആ ഭാഷ ഇപ്പം ഇംഗ്ലീഷ് ഭാഷ അറിയണം എന്നില്ല മലയാള ഭാഷമാത്ര അറിയൂ അത് കൊണ്ട്തന്നെ നല്ല നല്ലോണം നല്ല രീതിയില് അനുഭവിക്കുന്നുണ്ട് ഇപ്പം മലയാളികളെല്ലാം ഇപ്പോൾ കുട്ടികളയാൽ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ എല്ലാം എല്ലായി പുൾ കുട്ടികളെല്ലാം ആദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൽ ആണേൽ എൽ ക്കേ ജി യൂ ക്കേ ജി അതിൽ പഠിച്ച് പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അങ്ങോട്ട് ഒന്ന് വരെ ഒന്ന് മുതല് പത്ത് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇട്ടു അപ്പോൾ ആ കുട്ടികൾക്കൊന്നും അങ്ങനെ മലയാളം അറിയില്ല എന്നല്ല എന്നാലും നല്ല നമ്മളെ നമ്മളുടെ മാതൃഭാഷ മലയാളം അല്ലേ അപ്പോൾ ആ അതനുസരിച്ചുള്ള ഒരു ഇത് ഒര് കഴിവ് അവർക്ക് കിട്ടുന്നില്ല മിണ്ടാനും ഇപ്പം എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയത്കൊണ്ട് അങ്ങനെ ചില എന്തേലും ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞാല് ഇങ്ക്ളീഷിന് വാല്യൂ ഇല്ല എന്നല്ല പക്ഷെ ഈ ഇങ്ക്ളീഷ് മീഡിയം പഠിച്ചവർക്ക് സീറ്റ് കിട്ടാൻ നല്ലോണം പ്രയാസമാണ് സീറ്റ് ഗവൺമെൻറ്റ്ല് സീറ്റ് കിട്ടാൻ നല്ലോണം പ്രയാസമാണ് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്ക് അതുകൊണ്ട്തന്നെ ഇപ്പോൾ എൽ ക്കേ ജീ ഏഴ്വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇട്ടിട്ട് ഇട്ട ശേഷം പിന്നെ മലയാളം മീഡിയത്തിൽ ഇടുന്നവരും ഉണ്ട് അപ്പോൾ ഇംഗ്ലീഷും തറവായി മലയാളവും തറവ് തറവാകും ഈ മൂന്ന് വർഷത്തിനുള്ളിലും ഇംഗ്ലീഷ് മലയാളം തറവായിട്ട് കിട്ടുകയും ചെയ്യും അത്രയും ഒള്ളു ഈ മലയാളഭാഷയെ കൊണ്ട് നേരിട്ന്ന വെല്ല് വിളികളെല്ലാം നമ്മളുടെ മാതൃഭാഷ മലയാളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് സംസാരിക്കാൻ ശീലിക്കണം